ഏറ്റവും കൂടുതൽ നമ്മൾ ഈ ഇപ്പോൾ നമ്മൾ പഠിക്കുന്നോർ ഇപ്പോൾ ഞാൻ ഒരു പഠിക്കുന്നോരാണ് അപ്പോൾ നമുക്ക് ഈ അവധി നോക്കിയാണന്ന് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യാൻ താത്പര്യപ്പെടുന്നത് അപ്പോൾ നമ്മൾ അവധിയില്ലാത്ത ഒരു കോളേജിലാണെങ്കിലും അവധിയില്ലാത്ത ഒരു സ്ഥലത്ത് പോകാൻ നമ്മൾ ആ ഹാജർ നഷ്ടപ്പെടുകയും ചെയ്യും അത്കൊണ്ട് എ എപ്പോഴും അവധിയുള്ള ഒത്തിരി മൂന്നാല് മിനിമം ഒരു അഞ്ച് ദിവസമെങ്കിലും അവധിയുള്ള സമയങ്ങളിലാണ് നമ്മൾ യാത്ര ചെയ്യാൻ സ്ര താത്പര്യപ്പെടുന്നത് അപ്പം നമുക്ക് ഒരു ദിവസത്തെ യാത്രയെന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ഒരു ഇതല്ലല്ലോ നമുക്ക് ഒരു ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം ഒക്കെ അടിച്ച് പൊളിച്ച് യാത്ര ചെയ്യാനൊക്കെയാണ് നമുക്ക് ചുമ്മ ട്രാവൽ ചെയ്യാമല്ലോ അപ്പോൾ ഓരോരുത്തരുടെ ഓരോ നല്ലൊരു എനിക്ക് എനിക്ക് ഇഷ്ടമാണ് എനിക്ക് ഒറ്റക്ക് ഒരു ഒറ്റക്ക് ആണെങ്കിലും ഒറ്റക്കങ്ങനെ യാത്ര ചെയ്യത്തില്ല ആരെങ്കിലും എപ്പോഴും കൂടെ കാണും ഒന്നേ കൂട്ടുകാർ അല്ലെങ്കിൽ വീട്ടുകാർ ഒക്കെ ആയിട്ടായിരിക്കും യാത്ര ചെയ്യുന്നത് ഒരു മൂന്നാലഞ്ച് ദിവസം ഒക്കെ ആയിരിക്കും യാത്ര അത് നമുക്ക് എപ്പോഴും അവധി ഇല്ലാത്ത നമ്മൾ ദിവസം നോക്കി അവധിയുള്ള ദിവസം നോക്കി യാത്ര ചെയ്യുന്നതായിരിക്കും എപ്പോഴും ചെയ്യുന്നത് അത് ആ ഒരു അവസരത്തിലായിരിക്കും നമുക്ക് കൂടുതൽ കംഫർട്ടായി നമുക്ക് ആ ഹാജർ പോകുമെന്നുള്ള ഒരു ടെൻഷനില്ല അങ്ങനെയുള്ളതൊക്കെ ചെയ്യാൻ പറ്റും